പണ്ടത്തെ കാലത്തൊക്കെ കിണറ്റിന്നു വെള്ളം എടുക്കുന്നത് എങ്ങനെയാന്നുവെച്ചിട്ടുണ്ടെങ്കില് കപ്പിയും കയറും അങ്ങനെത്തെ കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടാണ് അതായത് കപ്പി അവിടെ കിണറ്റിൻ്റെ ഒരു പിന്നെ സ്ഥലത്ത് ഇങ്ങനെ തൂക്കിയിടും അന്നിട്ട് അതിൽ കയറിട്ടിട്ട് ഒരു കയറിൻ്റെ അറ്റത്തൊരു ഒരു ബക്കറ്റോ അങ്ങനെ എന്തെങ്കിലും കെട്ടിയിട്ടാണ് വെള്ളം വലിക്കാറ് അത് വലിച്ചെടുക്കുവാണ് ചെയ്യുന്നത് പിന്നത്തെ കാലത്താണ് ഈ മോട്ടർ കാര്യങ്ങളൊക്കെ വന്നത് മോട്ടർ എങ്ങനെയാ വെക്കുന്നേന്നുവെച്ചിട്ടുണ്ടെങ്കില് പിന്നെ ഒരു വലിയൊരു പൈപ്പ് മേടിക്കും പിന്നെ മോട്ടർന്നുവെച്ചിട്ടുണ്ടെങ്കിൽ കുറ്റിമോട്ടർ ഉണ്ടാവും അതായത് താഴെ വെച്ചിട്ട് അതായത് കിണറ്റിലേക്ക് താത്തുന്ന മോട്ടർ ഉണ്ടാവും കുറ്റിമോട്ടറാണ് നല്ലത് മറ്റേ താഴത്തേക്കു താത്തുന്നതാണെങ്കിൽ മണ്ണ് പെട്ടെന്ന് കേറാനുള്ള ചളി പെട്ടെന്ന് ആവാനുള്ള സാധ്യതയുണ്ട് പിന്നെ അത് പൈപ്പ് വെച്ചിട്ടു ആ പൈപ്പ് അതിലേക്കു കണക്ഷൻ കൊടുക്കും കണക്ഷൻ കൊടുത്തിട്ട് മോട്ടറിൻ്റെ അതായത് ഇവിടെ ഇടേണ്ട സ്വിച്ചൊക്കെ നമ്മടെ വീട്ടിലാണേൽ വീട്ടില് അതൊക്കെ ഘടിപ്പിക്കും ഘടിപ്പിച്ചേനു ശേഷം ഒരു എലക്ട്രിഷ്യനെ വിളിച്ച് നമ്മൾ അത് സെറ്റാക്കും ഇപ്പോൾ പൈപ്പില് അതായത് ചിലർക്ക് പൈപ്പിൽ അല്ലാണ്ടായിരിക്കും വെള്ളം കിട്ടുക പൈപ്പിലാണ് വെള്ളം വേണ്ടെങ്കില് നമ്മൾ മേലെ അതായത് വീടിൻ്റെ മേലെയോ അല്ലെങ്കിൽ ഒരു സൈഡിലോ ടാങ്ക് വെച്ചിട്ടു ചെയ്യും അങ്ങനെയാണ് സാധാരണ മോട്ടർ അതായത് ടാങ്ക് വെച്ചിട്ടുണ്ടെങ്കിൽ പൈപ്പിലൂടെ വെള്ളം വരും അങ്ങനെയാണ് സാധാരണ മോട്ടറൊക്കെ വെക്കാറ്